ആ ഹലോ ആ അതെ

ആ ആ ഓ ശരി ആ ആളാണല്ലേ

ആ അത് ശരി ഈ സ്ഥലം എവിടെയാണെന്നാ പറഞ്ഞത് പത്തനംതിട്ടയിൽ എവിടെയാണെന്നാ കോഴഞ്ചേരി നിങ്ങൾക്ക് ചെങ്ങന്നൂർ വന്നിട്ട് വരുന്നതായിരിക്കും നല്ലതേ ആ ചെങ്ങന്നൂർ വന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരം ഫാസ്റ്റ് ഉണ്ടാകും ആ അല്ലെങ്കിൽ ട്രെയിനിൽ വരാം ഏ അതിൽ വന്നാൽ തമ്പാന്നൂർ ഇറങ്ങണം ആ ആ ബസിലാണെങ്കിൽ ആ തമ്പാനൂർ തമ്പാനൂർ ഇറങ്ങണം ആ തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് കിഴക്കേക്കോട്ട എന്ന് പറഞ്ഞ ബസ്സ് ഉണ്ട് നിങ്ങൾ ട്രെയിനിൽ വന്നാലും റെയിൽവേ സ്റ്റേഷനിൽനിന്ന് പിന്നെ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലോട്ട് വരണമെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരാവുന്ന ദൂരമേയുള്ളൂ ആ ആ ഉണ്ടാവും വിളിച്ചാൽ മതി തമ്പാനൂർ വന്നിട്ട് വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്തിലാ വരുന്നത് എന്ന് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ നമുക്ക് വിളിക്കാനായിട്ടുള്ള സൗകര്യം അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ ചെയ്യാം അപ്പോഴത്തെ അപ്പോൾ വിളിച്ചാൽ മതി അതിനൊക്കെ അതിനൊക്കെ അതിനുള്ള സമയം സ്ഥലവും ഉണ്ട് അതൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയാം കിഴക്കേക്കോട്ട തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ആ ആ സ്റ്റേയുണ്ട് നമുക്ക് നമുക്ക് പരിചയമുള്ള വീടുണ്ട് ആ നമുക്ക് അവിടെ ഇങ്ങനെ ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട് അവ അവിടെ നമുക്ക് താമസിക്കാം അതിനൊന്നും പ്രശ്നം ഇല്ല വെളുപ്പിനെ നാലുമണിക്ക് അവിടെ തൊഴാനുള്ള ഇതുണ്ട് തലേദിവസം വന്നുകഴിഞ്ഞാൽ വെളുപ്പിനേ തൊട്ടെ ദർശനം ഉണ്ട് പക്ഷെ വരുമ്പോൾ ഒരു കാര്യം ഉണ്ട് അവിടെ എല്ലാ ഡ്രസ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ജീൻസ് ചുരിദാർ അങ്ങനെത്തെ ഒന്നും പറ്റില്ല ആ പാവാടയും ബ്ലൗസോ അല്ലെങ്കിൽ സാരി ഇതൊക്കെയാ ഉപയോഗിക്കുന്നത് ആ ആണുങ്ങൾക്ക് മുണ്ടും ഷർട്ടും ആ ഷർട്ട് ഒന്നും അകത്ത് ക്ഷേത്രത്തിനകത്തു കയറുമ്പോൾ ഷർട്ട് പറ്റത്തില്ല ആ ആ നാലുമണി വരെയുണ്ട് പിന്നെ രാത്രി വരെയുമുണ്ട് ഇടക്ക് ഉച്ചയ്ക്ക് ഗ്യാപ്പ് ഉണ്ട് അത് ഞാൻ വന്ന് കഴിയുമ്പം പറഞ്ഞുതരാം അതെ അവിടെ ചുറ്റുവട്ടത്തും കയറാൻ അവിടെ ഒരാളിന് ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഉണ്ട് പലേ നമ്മൾ അടുത്തു കാണണമെങ്കിൽ അത്രയും ഉണ്ട് അല്ലാതെ സാധാരണ ക്യൂ ഉണ്ട് അത് ക്യൂ നിൽക്കണം ഒത്തിരി ആ ഫുഡ് ഉണ്ട് ആ വെജിറ്റേറിയൻ ആണ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അതാണല്ലോ മ്മ് ആ ശരി ശരി